ഇതെടുക്കട്ടെ

ആ പറഞ്ഞോളു ഓക്കെ ഓക്കേ ആ സാറെ വീട് എവിടെയായിട്ടായിരുന്നു വരുന്നത് ലൊക്കേഷനൊന്നു പറയാമോ ആ ഓക്കെ മുണ്ടക്കയം കറക്റ്റെവിടെയാണെന്നു പറയുമോ ആ സ്റ്റാൻഡിന് പുറകിലല്ലേ ഓക്കേ അപ്പോള് വീട് എത്ര സ്ക്വയർ ഫീറ്റായിരുന്നു ഓക്കെ ആ അതെങ്ങനെയാണ് നിങ്ങള്ക്ക് ഗ്രൗണ്ട് ഫ്ലോറില് തന്നേങ്കില് അവിടെ തന്നെ എക്സ്റ്റൻഡെയ്യാനാണോ അതോ മണ്ടേലോട്ട് നിലകൾ കൂട്ടാനാണോ പ്ലാൻ ഓക്കെ ഓക്കെ അപ്പോള് ഈ മുറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആ ഓക്കെ അപ്പോള് സൈഡിലോട്ടും സൈഡിലോട്ടെക്സ്റ്റൻഷൻ വേണോ അതോ നിലകള് മാത്രം കൂട്ടിയാല് മതിയോ ഓക്കെ അപ്പോള് ഓക്കെ നിലകൾ കൂട്ടും അപ്പോള് സാറിൻ്റെ ബഡ്ജറ്റ് ഏത് റേഞ്ച് വരെയാണു പോകുന്നതെന്നു പറയാമോ ആ ഓക്കേ നമ്മളിപ്പോള് നമ്മുടെ കമ്പനിയുടെ പോളിസി എന്നു പറയുമ്പോഴത്തേനും ഇപ്പോള് അതായത് ഹൗസ് ഓണർ അതായത് നമ്മുടെ നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ പറയുന്നതിൻ്റെ ബഡ്ജറ്റിൻ്റെ നേർപകുതി ആക്കിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കമ്പനിയുടെ പോളിസി അപ്പോള് താങ്കൾ മുപ്പത് ലക്ഷം ബഡ്ജറ്റാണെങ്കിൽ നമ്മളിപ്പോള് ഒരു പതിനഞ്ചില് പതിനഞ്ച് ലക്ഷം ബഡ്ജറ്റില്ത്തന്നെ നിങ്ങളുടെ ഒരു നില നിങ്ങള്ക്ക് അപ്പോള് മണ്ടേലോട്ടെത്ര നിലയാണെന്നൊന്നു പറയാമോ രണ്ടു നില മണ്ടേലോട്ട് അതായത് ഉള്ള നിലയില്നിന്നും രണ്ടു നിലയിലോട്ട് മണ്ടേലോട്ട് വേണമല്ലെ ഓക്കെ അപ്പോള് ഞങ്ങളുടെ ഇതു വച്ചിട്ട് ഒരു ട്വൻ്റി ഫൈവ് ലാക്സിന് ഞങ്ങളിത് സെറ്റെയ്തുതരാമെന്നാണ് അപ്പോള് പ്രശ്നമൊന്നുമില്ല ആ അപ്പോള് ട്വൻ്റി ഫൈവ് ലാക്സിനെന്നു പറയുമ്പോഴത്തേനും രണ്ടു നിലയും പിന്നെ നിങ്ങള്ക്ക് അത്യാവശ്യം വേണ്ട നിങ്ങള്ക്കിപ്പോള് മറ്റേ വീടു മാത്രം മണ്ടേലോട്ടെക്സ്ട്ടെൻറ്റെയ്താല് മതിയോ അതോ എക്സ്ട്രാ ഫർണിച്ചറൊക്കെ വേണോ ആ ഓക്കേ അപ്പോള് ഒരു ട്വൻ്റി ഫൈവ് ലാക്സാണ് രണ്ടുനില വരുമ്പോഴത്തേനും വരുന്നത് അപ്പോള് നമ്മുടെ ഫൈവ് ലാക്സ് നമ്മുടെ കമ്പനി പോളിസി അനുസരിച്ച് ഓഫറാണ് വരുന്നത് അപ്പോള് നിങ്ങള്ക്ക് ആ പോളിസി നിങ്ങള്ക്കെന്താണേലും കിട്ടും അപ്പോള് നിങ്ങളിതിനെക്കുറിച്ചു കൂടുതല് പറയാനായിട്ട് നിങ്ങളുടെ അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിലായിട്ട് വാട്സ്പ്പെയ്യണം വാട്സ്പ്പ് നമ്പര് ഇപ്പോള് താങ്കള് വിളിക്കുന്ന ഈ കോളില് തന്നെ ഇവിട നമ്പർ തന്നെ വാട്സപ്പെയ്താല് മതി പിന്നെ താങ്കൾക്ക് എങ്ങനെയാണ് എത്ര ദിവസത്തിനുള്ളിലാണ് പണി തീർക്കേണ്ടതെന്നു പറയാമോ ഒരു ആ ഒരു വർഷം കൊണ്ട് തീർക്കണം അപ്പോള് സാർ ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് നിങ്ങള്ക്ക് അപ്പോള് ഞങ്ങള്ക്ക് വർക്കേഴ്സ് കൂടുതലുണ്ട് അപ്പോള് ഈ ട്വൻ്റി ഫൈവ് ലാക്സിനുള്ളില്ത്തന്നെ നമുക്കിപ്പോള് ഒരാറു മാസത്തിനുള്ളില് ആറു മാസത്തിനുള്ളില് താങ്കൾക്ക് രണ്ടു നിലയും കൂടെ മണ്ടേലോട്ട് പണിതു തരാം അപ്പോള് ഒരു വർഷത്തിന് ആവശ്യമില്ല സാർ അപ്പോള് അത് ഞങ്ങളുടെയൊരു ഓഫറാണ് അപ്പോള് അതും കൂടെ ചേർത്തപ്പോള് താങ്കൾക്ക് ആറു മാസത്തിനുള്ളില് രണ്ടു നില ബാക്കി സ്പെസിഫിക്കേഷൻ താങ്കള്ക്ക് എന്താണു വേണ്ടതെന്നു പറയുന്നത് അ അത് ആ ഓക്കെ ഇത് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താങ്കൾ പറഞ്ഞാല് മതി വാട്സാപ്പില് നമ്പർ ഞാൻ താങ്കളെ ഈ വിളിക്കുന്ന നമ്പർ തന്നെയാണ് അത് മെൻഷൻ ചെയ്യുക അതിനകത്തോട്ട് വാട്സാപ്പിലേക്ക് താങ്കള്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അയയ്ക്കുക നമ്മുടെ ഞാന് നേരിട്ട് വന്നോ നമ്മുടെ ഓഫീസില്നിന്ന് അങ്ങോട്ട് വരികയോ എന്തേലുമൊക്കെ ചെയ്യാം ആ അതെങ്ങനെയാണെന്നുവച്ചാല് വാട്സാപ്പില് കോൺടാക്ടെയ്യാം ഓക്കെ ബൈ താങ്ക്യൂ